അടുത്തിടെ വലിയ തോതിൽ കേരളത്തെ മുഴുവന് സ്വാധീനിച്ച വാര്ത്തകൾ ആയിരുന്നു വയനാടന് ദുരന്തവും അര്ജുന്റെ തിരോധാനവും ഇപ്പോൾ വയനാട് ദുരന്തം എന്ന് പറയുമ്പത്തേനും നമ്മുടെ കേരളത്തിൽ കൊച്ച് കേരളത്തിൽ മുന്നെ ഫ്ലഡ് വന്നിട്ടുണ്ട് അല്ലാതെ ഉരുൾപൊട്ടൽ അങ്ങനെത്തെ പ്രശ്നങ്ങളെക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വയനാട് ദുരന്തം എന്ന് പറയുമ്പം കേരളത്തിലെ എല്ലാ ആള്ക്കാരുടെയും മനസ്സിലൊരു വിങ്ങലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറ് കൊണ്ട് ആ ഒരു ഒരു ഏരിയ ഫുള്ള് ആയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാവര്ക്കും മനസ്സില്ത്തന്നെ ഒരു വിങ്ങലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുപോലെത്തന്നെ ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് കുട്ടികളുടെ സ്വപ്നങ്ങളും അതുപോലെ ഈ വളര്ന്ന് വരുന്ന കുട്ടികളെക്കുറിച്ചിട്ട് അവരുടെ പാരന്സിന് ഉണ്ടാവുന്ന വലിയ വലിയ സ്വപ്നങ്ങളും ഒക്കെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടായിപ്പോയത് അതുപോലെത്തന്നെ സ്കൂള് അവിടെ ഒരു വലിയ സ്കൂളും ആ സ്കൂളിൽ ആ ഏരിയേലുള്ള കുട്ടികൾ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആ ആ ഒരു മണ്ണിടിച്ചിലിൽ ആ സ്കൂള് മുഴുവനോടെ പോവുകയായിരുന്നു ചെയ്തിരുന്നത് അതുപോലെത്തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ആണെങ്കിലും പഠിപ്പിച്ചിരുന്ന ടീച്ചേസ് ആണെങ്കിലും അങ്ങനെ എല്ലാവരും ആ ഒരു മണ്ണിടിച്ചിലിൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്തത് അപ്പം അതിന്റെ ഒരു വേദന കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഒരു കോണിൽ വയനാട് എന്ന് കേൾക്കുമ്പം തന്നെ അങ്ങനെയൊരു വിങ്ങലുണ്ടാവുന്നതാണ് പിന്നെ അതുപോലെത്തന്നെ അര്ജുന്റെ തിരോധാനം അര്ജുന് നമ്മുടെ കൊച്ച് കേരളത്തിലൊള്ള മനുഷ്യന് തന്നെയാരുന്നു അര്ജുന് അര്ജുന്റെ ജോലിയുടെ കാര്യമായിട്ട് പുറത്ത് കര്ണാടക അങ്ങനെ ഒരു പുറത്തേക്ക് ഒരു സ്ഥലത്ത് ആയിരുന്നു ട്രക്കിൽ കുറച്ച് തടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ട്രാവല് ചെയ്യുകയായിരുന്നു ചായ കുടിക്കാനായിട്ട് വണ്ടിയൊരു സൈഡിൽ നിര്ത്തിയിട്ട് ചായക്കടയിലേക്ക് പോയി ചായ കുടിക്കാനുള്ള ആ ഒരു ഒരുക്കത്തിലോ അതോ മയക്കത്തിലോ എന്തോ ട്രക്കിൽ തന്നെയായിരുന്നു പുള്ളി പുള്ളിക്ക് ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞ് മോനുണ്ട് അപ്പം മോന് വേണ്ടിയിട്ട് കരുതി വച്ചിരുന്ന കളിപ്പാട്ടങ്ങളും കുറച്ച് പൈസയും മോന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആ ട്രക്കിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ട്രക്ക് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ അര്ജുന്റെ തിരോധാനം എന്ന് പറയുമ്പോൾ ആ ട്രക്ക് അവിടെ നിറുത്തിയിട്ടിരുന്നെങ്കിലും ഒരു മണ്ണിടിച്ചിൽ പെട്ടെന്ന് ഉണ്ടാവുകയായിരുന്നു ചെയ്തത് ആ മണ്ണിടിച്ചിലിൽ ആ ട്രക്ക് നേരെ നേരെ ഓപ്പോസിറ്റ് ഒരു ഒരു പുഴയെങ്ങാണ്ടുവാണ് അപ്പം ഞാ മണ്ണിടിച്ചിൽ നേരെ ഉണ്ടായത് നേരെ വണ്ടി പുഴയിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം നമ്മുടെ കേരളത്തില്നിന്നുള്ള ഒരാളാണ് എന്നുള്ള ഒരൊറ്റ കണ്സെപ്റ്റിൽ അവിടെ കേരളത്തില് നിന്നുള്ള ആള്ക്കാരുടെ പ്രഷറ് കൊണ്ടിട്ട് ഇവർ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അതുപോലെയാണെങ്കിലും അവരുടെ വീട്ടുകാരുടെ അവസ്ഥയെക്കെ ആണെങ്കിലും വളരെ പരിതാപകരമായിരുന്നു ഒരു മോൻ ഉണ്ടെന്ന് പറഞ്ഞൂല്ലോ ഒരു മോനുണ്ട് അവര്ക്ക് മോൻ ആണെങ്കിലും അച്ഛന് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു നമുക്ക് ആയാലും അങ്ങനെ തന്നെയാണല്ലോ അപ്പം അതുപോലെ മോൻ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ അതുപോലെത്തന്നെ ഭാര്യയായാലും അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു അര്ജുനെ കണ്ട് കിട്ടും അല്ലെങ്കിൽ രക്ഷപ്പെടുത്താന് പറ്റും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുറേ നാൾ പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ഒരു വണ് വീക്കിനൊക്കെ ശേഷം ഒരാഴ്ചക്ക് ശേഷവും അര്ജുന്റെ അര്ജുനെയും അര്ജുന്റെ കാണാണ്ട് പോയ ട്രക്കും കണ്ട് കിട്ടിയില്ലാ എന്നുള്ള ഒരു സിറ്റുവേഷന് വന്ന് കഴിഞ്ഞപ്പത്തേനും മുതൽ എന്നും ഡെയിലി രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഒന്നേ ഫോണിൽ ആണെങ്കില്ത്തന്നെയും ന്യൂസ് വെച്ച് നോക്കുന്നത് അര്ജുന്റെ കാര്യം തന്നെയായിരുന്നു അതുപോലെ ടീ വീ ൽ ആണെങ്കിൽത്തന്നെയും ന്യൂസ് വെച്ച് നോക്കിക്കൊണ്ടിരുന്നത് അര്ജുന്റെ കാര്യം തന്നെയായിരുന്നു പക്ഷെ അവസാന സമയമായപ്പോഴേക്കും നമുക്ക് വന്നിട്ട് ഒരു വിഷമകരമായ വാര്ത്തയാണ് അറിയാന് കഴിഞ്ഞത് നമുക്ക് ജീവനോടെ അര്ജുനെ കണ്ടെത്താന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അര്ജുന്റെ ബോഡിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെത്തന്നെ ട്രക്ക് കണ്ട് കണ്ടെത്തിയ സമയത്ത് ട്രക്കിനകത്ത് നിന്നിട്ട് അര്ജുന് അര്ജുന്റെ മോന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു അതിൽനിന്ന് കണ്ടെത്താന് സാധിച്ചത് അപ്പം അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ അതായത് ഇത് കാര്യങ്ങളൊക്കെ അറിയുമ്പം തന്നെ വീട്ടിലുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ നടക്കുന്നത് പോലെയായിരുന്നു ഞങ്ങൾക്ക് അത് ഫീല് ചെയ്തുകൊണ്ടിരുന്നത് ഈ വയനാട് ദുരന്തവും അതുപോലെത്തന്നെ അര്ജുന്റെ തിരോധാനവുവാണ് ഈയിടയായിട്ട് കൂടുതലായിട്ട് ആഗോളതലത്തിലായാലും വാര്ത്തകൾ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ടിരുന്നത് അത് എന്റെ ഓര്മയിൽ ഇങ്ങനെ നിലനില്ക്കാന്നുള്ള കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും കേട്ടുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരുന്നതും നമ്മുടെ കേരളത്തിലോ ഇന്ഡ്യയിലോ ആയിരുന്നില്ല ഇതെല്ലാം പുറത്താണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇതെല്ലാം ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൊച്ച് കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പത്തേനും എപ്പോഴും നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഓര്ത്തിരിക്കുന്നതിന്റെ കാര്യം